ഹലോ ഗുഡ് മോണിംഗ് ആ സാർ ഞാൻ ഒരു സംശയം ചോദിക്കാനായിട്ട് വിളിച്ചതാണ് എനിക്ക് ഹലോ ആ എനിക്ക് മദ്യപിക്കുന്നൊരു ശീലമുണ്ട് ഇപ്പോൾ അതീന്നൊന്ന് മാറാനായിട്ട് ഞാനാഗ്രഹിക്കുന്നുണ്ട് ആ അതിനെന്താണ് ഒരു പോംവഴീന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ കോളേജി പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ചെറുതായിട്ടൊക്കെ മദ്യപിക്കുവായിരുന്നു പിന്നെ അതങ്ങ് കണ്ടിന്യു ചെയ്തു ഇപ്പോൾ കല്ല്യാണം കഴിച്ചു മക്കളൊക്കെ വലുതായി എന്നിട്ടും എനിക്കത് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുറേശ്ശെ മദ്യം കഴിച്ചെങ്കിലേ എനിക്ക് എൻ്റെ റൊട്ടീൻ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു വിത്ഡ്രോവല് ആവശ്യമാണെന്ന് തോന്നുന്നു എനിക്കത് മാറാൻ പറ്റുന്നില്ല അതിന് വേണ്ടീട്ടൊരു ഉപദേശത്തിന് വേണ്ടി ഞാൻ വിളിച്ചതാണ് ഇല്ല സ്വീകരിച്ചിട്ടില്ല കാരണം എനിക്ക് അതിനോട് താൽപ്പര്യമായിരുന്നു അത് കാരണം പോയിട്ടില്ല

ഓക്കേ

ഞാൻ കോട്ടയം ഓക്കേ എനിക്ക് എന്നാൽ എനിക്ക് ഓക്കേ എനിക്ക് ഈ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോവുമ്പോൾ മറ്റുള്ളവരൊക്കെ അറിയും ആ അല്ലാതെ പോകാനായിട്ട് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലാതെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ ഓക്കേ ഓക്കേ ഓക്കേ

ഓക്കേ സാറേ കൗൺസിലിംഗിനോട് എനിക്ക് അതിനോടാണ് എനിക്കഭിപ്രായം അപ്പോൾ ഞാൻ ബന്ധപ്പെടാനായിട്ട് നിങ്ങളുവായിട്ട് ബന്ധപ്പെടാനുള്ള എന്തെങ്കിലൊരു മാർഗ്ഗം എനിക്ക് തരണം

ആ ഉവ്വ് ഉവ്വ് ഓക്കേ സാറേ താങ്ക് യൂ ഇപ്പം ആ ഉണ്ട് ഉണ്ട് സാറേ

ആ ഓക്കേ സാറേ ഓക്കേ സാറേ താങ്ക് യൂ ഞാനീ നമ്പറിൽ ബന്ധപ്പെട്ടോളാം കേട്ടോ താങ്ക് യൂ ഉപദേശങ്ങൾക്ക് നന്ദി